ഹലോ ഹലോ നമസ്കാരം മാഡം ആണോ മാഡം എവിടെക്ക് പോവാനായിരുന്നു മാഡത്തിന് പേരെന്തായിരുന്നു ആ വീടെവിടെയാണ് മാഡം കോഴിക്കോടാണ് അല്ലേ ആ എപ്പോഴത്തേക്ക് വേണ്ടിയിട്ടാണ് മറ്റന്നാളത്തേക്ക് മറ്റന്നാൾ ആ ഓക്കെ ആ എങ്ങോട്ടുള്ള ബസ് ആണ് ബാംഗ്ലൂർ ടു ചെന്നൈ ആണ് ആ ആണോ എത്ര പേരുണ്ടാവും റേറ്റ് ബാംഗ്ളൂരിൽനിന്ന് ഞങ്ങൾ ഇപ്പം മോർണിങ് ആണോ ഏത് ദിവസമാണ് ടൈമിലാണ് മാഡത്തിന് വേണ്ടത് ആ മോർണിങ്ങ് പത്ത് മണിയാകുമ്പോൾ ബസ് സ്റ്റാൻഡിൽനിന്ന് എടുക്കും ബാംഗ്ളൂരിൽനിന്ന് മോർണിങ്ങ് കറക്റ്റ് പത്ത് മണിയാകുമ്പോൾ എടുക്കും മാഡത്തിൻ്റെ ബുക്ക് ചെയ്യാനല്ലേ മാഡത്തിന് ആ അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ബാംഗ്ലൂർ ടു ചെന്നൈ ആണങ്കിൽ മുന്നൂറ് രൂപ വരും ടിക്കറ്റിന് ആ റിട്ടേൺ ഉണ്ട് ആ ബസ് തന്നെ വേണമെങ്കിൽ തന്നെ മുൻകൂട്ടി പറയണം എന്നാൽ ആ ബസ് റിട്ടേൺ വരുന്ന സമയത്ത് വേണമെങ്കിലും അതിലും വരാം എന്നാലും മുന്നൂറ് രൂപ തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നൂറ് തന്നെയായിരിക്കും ആ ഒരാൾക്കുള്ള സീറ്റ് അല്ലേ മാഡം അ ആ പിന്നെ ആ ബാംഗ്ലൂർ ടു ചെന്നൈ അല്ലേ ആ കറക്റ്റ് പത്ത് മണി ആവുമ്പോൾത്തേനും ബസ് എടുക്കും പിന്നെ നിങ്ങളുടെ ഈ നമ്പറിലേക്ക് കോൾ ചെയ്താൽ കിട്ടില്ലേ ആ ഈ നമ്പറിലേക്ക് ഞാൻ വിളിക്കാം ബസ് എടുക്കുന്നതിന് മുൻപോരു ഒന്പതരയൊക്കെ ആവുമ്പത്തേനും ഞങ്ങൾ ആദ്യമൊന്ന് വിളിച്ച് വയ്ക്കും കോൾ പോകുന്നുണ്ടോ ആൾ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിച്ച് നോക്കും അത് കഴിഞ്ഞിട്ട് പിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മണിക്ക് കറക്റ്റ് സ്റ്റാൻഡിലെത്തി ബസ്സിൽ കയറണം കയറുന്നതിന് മുൻപേ ബുക്ക് ചെയ്തത് ഫോണിൽ കൂടിയാണെങ്കിലും ഫോണിൽ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ബുക്ക് ചെയ്തതിന്റെ ഞാൻ അങ്ങോട്ടേക്ക് അയച്ച് തരാം സീറ്റ് നമ്പർ ഒക്കെ അപ്പം ബസ്സിൽ കയറുന്നതിന് മുൻപ് അതൊന്ന് കാണിച്ചിട്ട് വേണം കയറാൻ കേട്ടോ ആ ഓക്കെ മാഡം എന്നാൽ താങ്ക്യൂ